ഹലോ ഹലോ ആ അക്ബർ ട്രാവൽസല്ലേ

ഞങ്ങള് ഒരു ഒരു വൺ മന്ത് മുന്നേ കോളേജ് സ്റ്റുഡൻറ്സ് മൈസൂർക്ക് ഒരു ടൂറ് പോയില്ലേ ആ ടൂർ അതേ പാക്കേജ് നമുക്കൊന്ന് കിട്ടുമോ ഒരു ഒരു ടൂർ പ്ലാനിങ്ങുണ്ടായിരുന്നു അതുതന്നെ കിട്ടുമോ അത് കോളേജ് കോപ്പറേറ്റീവ് കോളേജ് കുറച്ച് സ്റ്റുഡൻ്റസ് എല്ലാവരും കൂടെ ആ അതുതന്നെ കിട്ടുവോന്ന് ചോദിച്ചത് നമുക്ക് നല്ല ഗൈഡായിരുന്നു കൂടെയുള്ളത് മൊത്തത്തിൽ നല്ല കംഫർട്ടായിരുന്നു അപ്പൊൾ അതുതന്നെ കിട്ടുമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു ഇത് ഊട്ടിക്ക് ഊട്ടി ഊട്ടിക്ക് വേണ്ടിട്ട് ഞങ്ങളൊരു പത്താളേ ഉണ്ടാവുള്ളു പത്ത് ആളിന് പറ്റിയ ഓ അതുമതി അതുമതി ആ ആ മതി ഡേറ്റ് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് മൺഡേ അതെന്നെ വേണന്ന് ചോദിച്ചത് അവര് നല്ലൊരു എന്താപറയുക നമുക്ക് നല്ല കംഫർട്ടായിരിന്നു മക്കളും കുറച്ചു ഫാമിലിയും കൂടിണ്ട് അപ്പോ അവർക്കും കൂടെ ഒരു കംഫർട്ടായിട്ടുള്ള രീതിയിലുള്ള ഒരു യാത്രയാണല്ലോ അതെ അതെ അതെ അതെന്നെ ആ ആ ഒന്നറിയിക്കോ അവരെത്തന്നെ വേണെന്നാണ് നല്ലൊരു ഇതായിരുന്നു അതുകൊണ്ടാണ് അതന്നെ വാശിപിടിക്കുന്നത് ആയിക്കോട്ടെ ആ ശരി ശരി ആ ഞാൻ സൺഡേ അങ്ങോട്ട് വിളിക്കാം ആ കൺഫോം കൺഫോർമായിട്ട് ആ ഓക്കേ താങ്ക്യൂ സോ മച്ച്